ആ ഗുഡ് മോർണിംഗ് ആ ആ ഞാനൊരു ബൈക്ക് റെൻ്റിന് എടുക്കാനായിട്ട് വന്നതാണ് ആ ഓക്കെ

ഓക്കെ ഓക്കെ ആ ആ എനിക്കൊരു ബൈക്കാണ് റ്റു വീലറാണ് അപ്പോൾ ഏതൊക്കെ അവൈലബിൾ ആണ് ആ ആ ആ അതെ അതെ ആ എക്സ് സെഡ് ഓക്കെ ഓക്കെ ഈ നമ്മുടെ എങ്ങനെയാണ് ഇതിൻ്റെ രെജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെ ഐ ഡി പ്രൂഫ് അല്ലേ ഓക്കെ അതല്ല അതിൻ്റെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഓക്കെ ആ എനിക്കൊരു ആ ഒരു വൺ ഡേ ട്വൻ്റി ഫോർ ഹവറിലാണ് എനിക്ക് വേണ്ടത് പെർ ഹവർ തൗസൻ്റ് റുപ്പീസ് അത് കുറച്ച് കൂടുതലല്ലേ

ഓക്കെ ആ ഓക്കെ അപ്പോൾ ഇതിൽ ഫ്യൂവലൊക്കെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യണം അല്ലേ ഓക്കെ ഓക്കെ ഫ്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ഇത് എങ്ങനെ ഡെപ്പോസിറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ കോഷൻ ഡെപ്പോസിറ്റ് പോലെ ഓക്കെ ഓക്കെ ഫസ്റ്റ് തന്നെ പ്രീ പേയ്മെൻ്റ് അടക്കണം അല്ലേ ഓക്കെ പിന്നെ ട്വൻ്റി ഫോർ ഹവർ കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്താൽ മതി ഓക്കെ ഓക്കെ ആ അപ്പോൾ ബാക്കി നമ്മൾ ഇത് വണ്ടി എല്ലാം ആർ സിയും പൊലൂഷനും അതൊക്കെ അല്ലേ ക്ലിയർ അല്ലേ

ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇവിടെ തൃശ്ശൂർ ആണ് ആ ഓക്കെ ആ അതെ ടൂറിസ്റ്റിനായി വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ബൈക്ക് റെൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിലവ് കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് നോക്കിയത് ആ അതെ സമയവും സമയം കുറഞ്ഞ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് എത്ര വർഷമായി ഈ കമ്പനി നാല്പത് വർഷത്തോളമായി ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ വേറെ കാറൊക്കെ ഇവിടെ അവൈലബിൾ ആണോ ഓക്കെ ഓക്കെ ഓക്കെ അതെ അല്ലേ ഈ ഇലക്ട്രിക്ക് വെഹിക്കിൾസ് എടുക്കുമ്പോൾ റെൻ്റ് എങ്ങനെയാണ് അതിൻ്റെ

റെൻ്റ് കുറവാണല്ലേ ഓക്കെ അതിലിപ്പോൾ റ്റു വീലർ ഏതൊക്കെയാണ് അവൈലബിൾ ഉള്ളത് ആ ആ ഏതറ് ഓക്കെ ഓക്കെ അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി ലാഭം അല്ലേ ഓക്കെ ഓക്കെ എന്നാൽ അത് ഫിക്സ് ചെയ്യാം നമുക്ക് ആ ആ ആ അപ്പോൾ പേയ്മെൻ്റ് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാം അല്ലെ

ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ശരി ശരി